ഹലോ ഇത് ട്രാവൽ ഏജൻസി അല്ലേ ഞാനും എൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങളൊരു വിനോദ സഞ്ചാര കേന്ദ്രത്തിലോട്ട് പോവാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ആൾറെഡി ഞാൻ ക്യാബ് ഡ്രൈവർ ക്യാബ് ആൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ സമയത്തു നോക്കുകയാണെങ്കിൽ ഡ്രൈവറെ ശരിക്കും നേരത്തേ വരേണ്ടതാണ് പക്ഷെ ഞാൻ പക്ഷെ ആ വ്യക്തി ആളെത്തിയില്ല ഞാനൊരുപാട് നേരം വിളിച്ചു പക്ഷെ ആള് കോള് എടുക്കുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇത്ര ഉത്തരവാദിത്വമില്ലാണ്ട് ചെയ്യണത് ഒരാള് ആൾറെഡി ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഡ്രൈവറെ വിളിക്കണ സമയത്ത് ആള് സമയത്തു എത്തുന്നുമില്ല വിളിച്ചാൽ എടുക്കണുമില്ല അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സമയമാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങളെന്താണ് ഇപ്പോൾ ചെയ്യുന്നത്